എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടില്നിന്നും കഴിക്കുന്ന ആഹാരമാണ് വീട്ടില്നിന്ന് ചോറ് രാവിലെ ചായ ചായക്ക് ദോശ രാവിലെ ദോശ രണ്ട് ദോശയും ചായയും കുടിക്കുന്നത് എനിക്കിഷ്ടമുള്ള ആഹാരമാണ് ഉച്ചയ്ക്ക് ചോറ് മീന്കറി മീന്കറിയാണ് എന്റെ ഫേവറേയ്റ്റ് ഭക്ഷണം ഞാനൊരു കടല് സൈഡില് പുഴ പുഴയോരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് എന്റെ വീട് അപ്പം എല്ലാത്തരം മീനും എനിക്ക് കിട്ടും അപ്പം മീന്കറിയോട് ഏറ്റവും കൂടുതല് ഇഷ്ടം മീന്കറിയാണ് പച്ചക്കറികളോട് കാസര്ഗോഡ് കാസര്ഗോഡ് പ്രദേശത്ത് ജോലി ചെയ്യാന് വന്നതിന് ശേഷമാണ് പച്ചക്കറികള് അധികം കഴിക്കാന് തുടങ്ങിയത് കാസര്ഗോഡ് വസന്തവിഹാറിലെ ഭക്ഷണം എനിക്കിഷ്ടമാണ് അവിടുത്തെ ഉച്ചക്കത്തെ ചോറ് നല്ല ഇഷ്ടമാണ് അവിടുത്തെ സീറ സീറ ഭയങ്കര രുചിയുള്ളൊരു കാസര്ഗോഡ് ജില്ലയിലെ വസന്തവിഹാറ് അങ്ങനെ പറയുക കാസര്ഗോഡ് ജില്ലയിലെ കാസര്ഗോഡ് വസന്തവിഹാറിലെ സീറ ഏറ്റവും ഇഷ്ടപ്പെട്ടോരാഹരമാണ് ഇഷ്ടമെന്ന് പറഞ്ഞാലത് ഒരു പ്രാവശ്യം കഴിച്ചാല് ഇനിയും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും പിന്നെന്ന് പറഞ്ഞാല് കോഫീ ഹൌസുണ്ട് കാസര്കോഡത്തെ കോഫി ഹൗസ് കോഫി ഹൗസിലെ ബിരിയാണി ഇഷ്ടമാണ് ബിരിയാണി മസാലദോശ കോഫീ ഹൗസിലെ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് കാസര്കോഡ് കോഫീഹൗസിലെ ഭക്ഷണമാണ് കഴിച്ചത് അത് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് വീട്ടിലുള്ള ആഹാരമാണ് നമ്മള്ക്ക് എന്നും നല്ലത് വീട്ടില്നിന്നും ഉണ്ടാക്കുന്ന ആഹാരങ്ങള് പുറത്ത് നിന്ന് കഴിക്കുന്ന ആഹരങ്ങള് രുചി കൂടുതലായിരിക്കും രുചി കൂടുതലായിരിക്കും പക്ഷെ അത് എന്നും കഴിക്കുന്നത് നല്ലതല്ല വീട്ടിലുള്ള ആഹാരങ്ങൾ നമ്മള്ക്ക് കഴി വീട്ടില്നിന്നും എന്താഹാരവും വീട്ടില്നിന്ന് ആക്കി നമ്മള് കഴിച്ചാല് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് നല്ലതാണ് എന്നാ വീട്ടിലുള്ള ആഹാരം കഴിച്ചിട്ട് നമ്മൾ തടി തടി വെയ്ക്കുന്നില്ല പിന്നെ തടി കുറയുന്ന വണ്ണം വെക്കുന്നു അങ്ങനെയൊന്നുമില്ല തടിയിലും വണ്ണം വെക്കുന്നതിലൊന്നും ഒര് കാര്യവുമില്ല ആഹാരം നമ്മള് വീട്ടില്നിന്നും കഴിക്കുന്നതാണ് എന്തും നല്ലത് അതില് ക്രത്രിമം കുറവായിരിക്കും പുറത്ത് നിന്നുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴെങ്കിലും ഫാമിലിയായി പോയി ഇരുന്ന് ഭക്ഷണം എപ്പോഴെങ്കിലും പുറത്ത് നിന്ന് ആഹാരം കഴിക്കുന്നത് നല്ലതാണ് അത് പുറത്ത്നിന്നും നല്ല ഫാമിലിയായിട്ട് എന്ജോയ് ചെയ്തിട്ട് പുറത്തു നിന്ന് ആഹാരം കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ദിവസവും പുറത്ത്നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല വീട്ടിലുള്ള ആഹാരമാണ് എപ്പോഴും നല്ലത് പിന്നേന്ന് പറഞ്ഞാല് സദ്യ ഈ വിവാഹങ്ങളിലുള്ള വിവാഹം ആഘോഷങ്ങള് ആഘോഷങ്ങള്ന്ന് പറഞ്ഞാല് കല്യാണം ഗൃഹപ്രവേശം ഉത്സവം അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളില് ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണമായിരിക്കും അത് നമ്മള്ക്ക് കഴിക്കാന് വേണ്ടിയിട്ട് നല്ലതാണ് അത് ഇഷ്ടപ്പെട്ട ഒരാഹാരമാണ് ഒര് സ്ഥലത്ത് പോയാൽ അവിടുത്തെ കൂട്ടുകറി ഇപ്പോൾ നമ്മൾ ഒരു ഉത്സവത്തിന് ഞങ്ങള് പ്പൊതെക് വടക്കോട്ട് വടക്കോട്ട് എന്ന് പറഞ്ഞാല് കാസര്കോഡ് ജില്ലയുടെ തുടക്കം തുടക്ക തുടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം എന് കളിയാട്ട മഹോത്സവമുണ്ടാവും കളി കളിയാട്ട ആ കളിയാട്ട മഹോത്സവത്തിലെ ഭക്ഷണം കഴിക്കാന് ഇഷ്ടമാണെനിക്ക് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാല് അവിടുത്തെ കൂട്ട്കറിയുണ്ട് കൂട്ട്കറി എന്ന് പറഞ്ഞാല് കടല കടല ചേന കായ് അങ്ങനെയെല്ലാം വിട്ടിട്ട് ഒരു കറി കൂട്ട്കറി കൂട്ട്കറി എലിശ്ശേരി എന്ന് പറയും എലിശ്ശേരി അത് ഇഷ്ടമാണ് അത് അവിയില് സാമ്പാറ് ദാ പറയുമ്പം തന്നെ വായില് വെള്ളമൂറുന്ന് അത് മഹാല് മഹോത്സവങ്ങള് മഹോത്സവം എന്നുള്ള ഒറ്റയ്ക്കുള്ള മഹോത്സവം കളിയാട്ട മഹോത്സവം പിന്നെന്ന് പറഞ്ഞാല് വിവാഹങ്ങളില് പോയാല് വിവാഹത്തിലുണ്ടാകുന്ന വിവാഹത്തിന് പോയാല് ഗൃഹപ്രവേശനത്തിനെല്ലാം പോയാലുള്ള ബിരിയാണി ബിരിയാണി ഇഷ്ടാണ് ബിരിയാണി ആ വിവാഹത്തിനും ഗ്രഹപ്രവേശനത്തിനെല്ലം പോയാലുള്ള ബിരിയാണി നല്ലൊരാഹാരമാണ് പിന്നെ വി ബിരിയാണീം ചിക്കന്കറിയും സലാട്ടും അതെല്ലാം അടിപൊളി ഭക്ഷണമാണ് അങ്ങനെയുള്ള ദിവസങ്ങൾ ഇപ്പോൾ കഴിക്കുന്നാതെല്ലാം ഒര് ഇഷ്ടാഹാരമാണ് എന്തായലും നമ്മള്ക്കേറ്റവും പ്രധാനപ്പെട്ട ആഹാരം എനിക്ക് വീട്ടില്നിന്നുള്ള ചോറും കറിയും ചോറും കറിയും എന്ന് പറഞ്ഞാല് ആ ഉച്ചനേരത്തെ ചോറ് രാത്രിയിള്ള ചോറ് അത് ഇഷ്ടാഹാരമാണ് ഇപ്പം നമ്മൾ എവിടെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാലും വീട്ടില്നിന്ന് വീട്ടില്നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ല ഒരു ശീലമാണ് എനിക്ക് വീട്ടില്നിന്ന് ഒരു ഒരുരുളയെങ്കിലും വീട്ടില്നിന്നും ചോറ് കഴിക്കണം അതാണ് ഇശ് ഇഷ്ട ഭക്ഷണം വീട്ടിലുള്ള ഇഷ്ട ഭക്ഷണം പുറത്ത് നിന്ന് എന്ജോയ് ചെയ്യുക കുട്ടികളുടെ കൂടെ പോയി കുട്ടികള്ക്കതൊര് എന്ജോയ്മെന്റ്റാണ് ഈ കാലഘട്ടത്തില് എല്ലാ കുട്ടികള്ക്കും അമ്മമാര്ക്കും അച്ചന്മാര്ക്കും പുറത്ത് നിന്നാഹാരം കഴിക്കുന്നതൊര് ട്രെന്ഡാണ് ട്രെന്ഡ് എന്ന് പറഞ്ഞാല് ഈ കാലഘട്ടത്തിലെ ഒരിതാണ് അങ്ങനെ പുറത്ത് പോയി ആഹാരം കഴിക്കുന്നതല്ലാതെ വീട്ടിലുള്ള ആഹാരമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നാന്ന് പറഞ്ഞാല് വീട്ടില്നിന്നും ചോറും കറി തൈര് ചോറും കറി ഞങ്ങ് ഞങ്ങളുടെ നാട്ടില് എന്ന് പറഞ്ഞാല് വീട്ടില്നിന്നും മീന്കറി കൂട്ടുമ്പോള് അതിന്റകൂടെ തൈര് കൂട്ടും മീന്കറിക്ക് തൈരും യോജിക്കില്ല എന്നെല്ലാവരും പറയും പക്ഷെ ഞങ്ങൾക്ക് അതൊരിഷ്ടാഹാരമാണ് ഇപ്പം മീന്കറിയുടെ കൂടെ തൈരൊഴിച്ച് കഴിക്കുന്നത് ഞങ്ങളുടെ നാട്ടില് ഒര് ഇഷ്ട ഭക്ഷണമാണ് ഇനിയെന്ത് മീന്കറി ആയാലും ആ മീന്കറിയില് തൈരൊഴിക്കുക കുഴയ്ക്കുക കഴിക്കുക അതാണ് വീട്ടിലുള്ള ആഹാരത്തിന്റെ ഒര് രുചി ഞങ്ങളുടെ നാട്ടിലെ ഒരിത് എല്ലാ വീട്ടിലും ഉണ്ടാകും മീന്കറിക്ക് തൈര് കൂട്ടും പക്ഷെ കാസര്കോഡ് ഇങ്ങോട്ട് തെക്കോട്ട് തെക്കോട്ടില്ല വടക്കൊട്ടല്ലേ വടക്കോട്ട് കാസര്കോടെത്തിയാല് പറയും മീന്കറിയുടെ കൂടെ തൈര് കൂട്ടാന് പാടില്ല തൈര് അത് കൂട്ടാന് പാടില്ലാന്ന് പറയും പക്ഷെ ഞാന് കൂട്ടലുണ്ട് ഒര് ഓരോര് പ്രദേശത്തെത്തുംമ്പോഴും ഭക്ഷണത്തിനും ഓരോരോ മാറ്റങ്ങളുണ്ടാവും മാറ്റങ്ങള് പിന്നേ പച്ചക്കറികള് അധികം ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാല് ഇങ്ങോട്ടെത്തുമ്പം കാ സാമ്പാറിന് മധുരമുള്ളൊര് സാമ്പാറായിരിക്കും ഞങ്ങളങ്ങോട്ടെത്തുമ്പം സാമ്പാറിന് കുറച്ച് മാറ്റവുണ്ടാവും കാസര്കോഡ് ജില്ലയുടെ തുടക്കം തുടക്കമെത്തുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞാല് സാമ്പാറിന് മധുരം ഇടില്ല ഇങ്ങോട്ടെല്ലാം നല്ല മധുരമാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാലെനിക്ക് ഇങ്ങോട്ടുള്ള ആഹാരം ഇഷ്ടമാണ് കേട്ടോ ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാലേ വെള്ളരിക്ക കറിവെക്കും വെള്ളരിക്ക കറിക്ക് പിന്നെ ബെല്ലവും ഇട്ടിട്ട് കറി വെക്കും എന്തുപ്പാ അതിനൊരു പേരുണ്ട് ആ കറിക്ക് മിന്സ് മിന്സ് മിന്സ് കായ കറി മിന്സ് കായ എന്ത് കറി എനിക്ക് വെള്ളരിക്ക മിൻസ് കായ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കറിയുണ്ട് ആ കറിയെനിക്ക് ഇഷ്ടമാണ് കെട്ടോ മധുരം ഇട്ട ഒരു പിന്നെ എന്ന് പറഞ്ഞാല് വറവ് വറവ് എന്ന് പറഞ്ഞാല് വറവില് കയ്പ്പയ്ക്ക വറവ് കയ്പ്പയ്ക്ക വറവ് ഇങ്ങോട്ടെല്ലാം നല്ല പുളിയിടും പുളിയിട്ടിട്ടാണ് കയ്പ്പക്ക വറവ് നമ്മളുടെ പ്രദേശത്ത് കയ്പ്പയ്ക്കക്ക് പുളി ഇടില്ല പുളിയിടാതെ വെറും കയ്പ്പയ്ക്ക വറവ് കയ്പ്പയ്ക്ക വറവ് പച്ചപ്പറുങ്കി വെള് പച്ചപ്പറുങ്കി തേങ്ങയിലോട്ടിട്ടുള്ളൊര് വറവാണ് കയ്പ്പയ്ക്ക അപ്പം കയ്പ്പയ്ക്ക വറവ് എന്ന് പറഞ്ഞാല് ഈ നാട്ടിലുള്ള കയിപ്പക്കാ വറവ് ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ കയ്പ്പക്ക വീട്ടില് വെക്കുന്ന കയ്പ്പക്ക വറവ് ഇഷ്ടമാണ് പിന്നെയിങ്ങോട്ടെല്ലാം പറഞ്ഞാല് കുമ്പളങ്ങ കുമ്പളങ്ങ വറവ് കുമ്പളങ്ങേടെ ഓട് കുമ്പളങ്ങേടെ ഓട് വറവുണ്ടാവും ഞാന് എ എന്റെ നാട്ടില് കുമ്പളങ്ങയുടെ ഓടൊന്നും വറക്കില്ല കുമ്പളങ്ങ പുളിശ്ശേരി വെക്കും കുമ്പളങ്ങയുടെ ഓട് വറക്കില്ല അങ്ങനെയുള്ള ഓരോരോ ഭക്ഷണങ്ങളെനക്കിഷ്ടമാണ് ഇഷ്ടപ്പെട്ടത് ആഹാരമാണ് കുമ്പളങ്ങ വറവ് അങ്ങനത്തെ ഓരോരോ ആഹാരങ്ങള് ഇഷ്ടമാണ് പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ കാസര്കോഡ് കാസര്കോഡ് വന്നാല് കാസര്കോഡ് കാസര്കോഡ് പ്രദേശത്ത് മസ്ക്കാ കാസര്കോഡത്തെ മസാലയ്ക്ക് മസാലദോശയും നമ്മുടെ നമ്മുടെതെന്ന് പറഞ്ഞാല് കാസര്കോഡ് ജില്ലയുടെ തുടക്കം തുടക്കമെന്ന് പറഞ്ഞാല് ത്രക്കരപ്പൂരുവരെ ചെറുകുത്തൂരു വരെ കാലിക്കടവ് അതെല്ലാമാണ് കാസര്കോഡ് ജില്ലയുടെ തുടക്കം ആ കാസര്കോഡ് ജില്ലയുടെ തുടക്കത്തിലെ മസാല മസാലദോശയും കാസര്കോഡത്തെ മസാലദോശയും തമ്മില് വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാല് രുചികള്ക്ക് വ്യത്യാസമുണ്ട് അത് ആ ഒരോ പ്രദേശത്തിന്റെയാണ് പക്ഷെ എനക്കിവിടുത്തെ മസാലദോശ ഇഷ്ടമാണ് നമ്മളുടെ അവിടുത്തെ മസാലദോശയും ഇഷ്ടമാണ് മസാലദോശ മസാലദോശ ഇഷ്ടപ്പെട്ട ഒരാഹാരമാണ് പുറത്ത് നിന്ന് കഴിക്കുന്ന ആഹാരത്തിലൊന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മസാലദോശയാണ് പിന്നെ മസാലദോശ വീട്ടിലുള്ള ഏറ്റവും നല്ല ആഹാരം എന്ന് പറഞ്ഞാല് ചോറും മീന്കറിയും എന്റെ ഇഷ്ടപ്പെട്ട ആഹാരം ഭശ് ഇഷ്ടപ്പെട്ട ആഹാരം ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്ന് പറഞ്ഞാല് മീന്കറിയും ചോറും